ഞങ്ങൾ കൂട്ടുകുടും കൂട്ടുകുടുംബം ഒക്കെ ആയത്കൊണ്ട് ഒരുപാട് സംസാരിച്ച് ഒരുപാട് നാട്ടിലെ കാര്യങ്ങളും മറ്റും വർത്താനവുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും പാചകം ചെയ്യാറുള്ളത് അപ്പോൾ ഓരോ പരിപാടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടത്തെ ഉത്സവം വരുന്ന സമയത്തു ഒക്കെ എല്ലാവരും കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേരാറുണ്ട് അപ്പോൾ ഒത്തുചേരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളും മറ്റും സംസാരിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് അടുക്കളയിലെ പാചകം ചെയ്യുകയാണെങ്കിൽ എല്ലാവരും അവരു ഓരോ ജോലികൾ അവരുടേതായ ജോലികൾ ചെയ്ത് ചെയ്ത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നുതന്നെ എല്ലാം കഴിയും എല്ലാം പണികളെല്ലാം കഴിയും അങ്ങനെ ഒരുപാട് അടുക്കളയിൽ ആയിക്കോട്ടെ അവരുടേതായ അവർക്കു വേണ്ട പണികളെല്ലാം ചെയ്തിട്ട് നമ്മൾ ഒരുപാട് സംസാരിച്ചും മറ്റും കളിച്ചും ചിരിച്ചും ഒരുപാട് കാലത്തിനുശേഷം കാണുന്നത് കൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും അങ്ങനെയാണ് അടുക്കളയിൽ ചിലവഴിക്കുന്നത്